ഈ മാസം ഫിഫ്റ്റീൻത്തിന് അടുത്തുള്ള ഗ്രിൽ ഹൗസിൽ നിന്ന് തിരുവല്ല ഗ്രിൽ ഹൗസിൽ നിന്ന് ഞാനൊരു ടൂ പീസ് ബാർബക്യൂ ഓർഡർ ചെയ്തിരുന്നു ഹാഫ് ആ ഓർഡറിൻറെ റെസീപ്റ്റ് എനിക്ക് ആവശ്യമായിരുന്നു അത് ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു അതിൻ്റെ ഒരു റെസീപ്റ്റ് ഒന്ന് പ്രിൻറ് എടുക്കാൻ കിട്ടിയാലും പി ഡി എഫ് ആയിട്ട് കിട്ടിയാൽ മതി ഫയൽ കിട്ടിയാൽ മതി വേണ്ടത് ആ ആ ദിവസം ഹിസ്റ്ററിയിൽ നിന്ന് ആ ദിവസത്തെ ബിൽ അത് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ബിൽ ഒന്ന് പി ഡി എഫ് ആയിട്ട് ഫയൽ കിട്ടുവോ